ആ ആ പിന്നെ ഞാൻ മഞ്ജുള അപ്പോൾ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ട് കുറേ ആയി മരുന്ന് എടുക്കുന്നത് എല്ലാം അത് ആ കുറേ ഡോക്ടർ നിങ്ങളെ മരുന്ന് നല്ല പറ്റുന്നു എന്ന് പറയുന്നു ആരോ ഓ ഗ്യാസിന് എല്ലാം നല്ല പറ്റിയത് തന്നേ എന്ന് പറയുന്നുണ്ട് ഇന്ന് അപ്പോയിൻമെൻ്റ് ഉണ്ടാവുമോ അപ്പം ആ ആ ഞാൻ പുതിയതായിട്ട് വരുന്നത് ഇത് വന്നോണ്ട്ണ്ടാളും അങ്ങനെ ആ ഗ്യാസ് എന്ത് കഴിച്ചാലും ഗ്യാസ് തന്നെ ആണത അപ്പോൾ ഒന്ന് ഇല്ലേ ഉണ്ടെങ്കിൽ മരുന്ന് തന്നിട്ട് ഇത് ഇപ്പോൾ കുറേ ഡോക്ടർമാരെ കാണിച്ചിട്ടും ഒന്നും പറ്റുന്ന് പറ്റിയില്ല അതേ ആ അതെ

ആ വേറെ എന്തെങ്കിലും ടെസ്റ്റ് എല്ലാം ചെയ്ത റിസൾട്ട് എല്ലാം കൊണ്ടു വരേണ്ടി വരുമോ വേറെ ഇത് വരെ ചെയ്തത് ആ ആ

അതെ ആ കുറേ ഗുളിക കഴിക്കുന്നില്ലേ

ആ ആ അപ്പോൾ ആ അങ്ങനെ നിങ്ങൾ എല്ലാ ഇടത്തിലും മരുന്ന് കൊടുക്കുന്നല്ലോ എല്ലാ വിഷയത്തിനും ആ അത് ഗ്യാസിൻ്റെ തന്നെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ ഉണ്ടാവുന്നല്ലോ

ആ ആ അപ്പോൾ വേറെ ആരെങ്കിലും കൂട്ടിയിട്ട് വരണം

ദാ ടെസ്റ്റിൻ്റെ എല്ലാം നിങ്ങൾ അടുത്ത് ബില്ല് എല്ലാം എത്ര ആകും ടെസ്റ്റിൻ്റെ എല്ലാം എത്ര ചിലവ് ഉണ്ടാകും ആ അതെ അപ്പോൾ പോര ചെയ്യുമ്പോൾ എല്ലാം മുമ്പ് ചെയ്തിട്ട് ഉള്ളത് എല്ലാം മതിയാവുന്നില്ലല്ലോ നിങ്ങളെ അടുത്ത് തന്നെ പുതിയതായിട്ട് ചെയ്യണമല്ലോ ആ അതെ ശരി അപ്പോൾ